ഞാൻ ഈ ഇടയ്ക്ക് ഒരു ട്രേയ്നാത്ര പോയിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൽ കുറച്ച് പറയുക ആണെങ്കിൽ ട്രേയ്നിൽ യാത്ര ചെയ്തപ്പം എനിക്ക് മോശമായിട്ട് തോന്ന്യത് ടോയ്ലെറ്റ് വൃത്തിയില്ലായ്മ സീറ്റിങ്ങിൻറ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് സീറ്റിങ് കുറവായിരുന്നു പിന്നെ നമുക്ക് സ്റ്റാഫുകളുടെ ഇതിൽ ആണെങ്കിലും അവർ നമ്മളോട് മോശം ബിഹേവ്യറാണ് ചെയ്തിരിട്ടുണ്ടാര്ന്നത് പിന്നെ കൂട്തലായിട്ടും പറയാൻ ഉള്ളത് ടോയ്ലറ്റിൻറ്റെ കാര്യം തന്നെയാണ് അത് തീരെ വൃത്തിയില്ലായ്മ്മയാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് പിന്നെ അത് കൂടാണ്ട് നമ്മൾ ട്രേയ്ൻറ്റെ ടിക്കറ്റെട്ക്ക്ന്ന കാര്യത്തിൽ ആണെങ്കിലും നമ്മൾ പെട്ടെന്നെന്തെങ്കിലും ആവശ്യത്തിന് പോണ്ടി വരുമ്പോൾ നമ്മൾ ടിക്കറ്റെട്ക്ക്ന്ന കാര്യത്തിന് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നത് ഒരു വലിയ ഒരു കാര്യമാണ് ക്യൂ നിന്ന് ടിക്കറ്റെട്ത്ത് വരുമ്പത്തേക്കും ടൈമ് പോകുന്നു ട്രേയ്ൻ ട്രേയ്ൻ പോകുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊരു ചീത്ത ചീത്തയല്ല മോശപ്പെട്ട കാര്യമാണ് പിന്നെ കൂടുതലായിട്ടും പറയാനുള്ളത് ടോയ്ലറ്റിൻറ്റെ വൃത്തിയില്ലായ്മ്മ സീറ്റിങ്ങ് പിന്നീട് ടിക്കറ്റിൽ കാര്യന്തന്നെയാണ് കൂടുതലായിട്ട് പറയാനുള്ളത്